ആ അടുക്കളയിൽ ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എലി പാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ഹിറ്റ് എടുക്കുക നാല് അടി അടിക്കുക പിന്നെ കുറച്ചൊക്കെ ഉണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് നിവർത്തികേട് വന്ന് കഴിഞ്ഞാൽ ചെരുപ്പ് എടുത്ത് നാല് പൊട്ടിക്കലങ് പൊട്ടിച്ചു കൊടുത്താൽ കുറേയൊക്കെ പാടായിട്ട് അവിടെ ഇരിക്കും ഇപ്പം ബാക്കിയുള്ള ഒരു ചെയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാല് പൂച്ചനെ മേടിച്ച് ഇടുക വളർത്തുക എലി ശല്യം അതോടെ തീരും ഇതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഇപ്പം നാല് പൂച്ചയുണ്ട് നാല് പൂച്ചയ്ക്ക് അതായത് ഈ യമണ്ടൻ തീറ്റയും കൊടുത്തിട്ട് അങ്ങ് നിർത്തിയെക്കുകയാണ് ഒരു കാര്യം ഇല്ലാണ്ട് വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പാടായിട്ട് എലി ഇവിടുന്ന് പോകത്തുള്ളു ചത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്ന് കൊല വിളിച്ചിരിക്കും അവന്മാർ നാലും കൂടെ പിന്നെ ഇപ്പോൾ ഇനി കൂറാന്നക്ക വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് ഇടക്ക് പൂച്ച കൂറേനെ പിടിക്കാറുണ്ട് ഇപ്പം പറന്ന് നടക്കുന്ന പൂച്ച ഒക്കെയാണെങ്കിൽ ഞാൻ ചെരുപ്പെടുത്ത് ഒരൊറ്റ അടി വെച്ച് കൊടുക്കാറുണ്ട് ചിലർ ബാറ്റില്ലേ ഇലക്ട്രിക്കൽ ബാറ്റിക്കെ മേടിച്ച് ഇങ്ങനെ അടിക്കാറുണ്ട് ഇപ്പം കൂറയൊന്നും വലിയ ഡേഞ്ചർ ആയിട്ടില്ല പക്ഷേ എന്നാലും പല പല രോഗങ്ങളൊക്കെ വരുന്നത് കൂറകളൊക്കെ കാരണമാണ് തന്നെയാണ് അപ്പം നമുക്ക് എന്ന് ഇത് പറ്റു അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്റെ ചെരുപ്പ് തന്നെയാണ് ചടപടെന്നാണ് നാല് അടി അടിക്കുക തീർക്കുക